പ്രദേശത്തെ ഗോത്രകലയെന്ന് പറയുന്നത് കളരിയാണ് അതൊരു ഗോത്രകലയായിട്ടും കൊണ്ട് നടക്കുന്നുണ്ട് ഗോത്രകലയിൽ തന്നെ കൂടുതലായിട്ട് കൂടുതലായിട്ട് കണ്ട് കാണുന്നത് കളരിയെന്ന് പറയുന്നതാണ് അതിന് ചെറിയ കുട്ടികളെ മുതലങ്ങനെ പഠിപ്പിച്ച് പാരമ്പര്യമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു കലയായിട്ടാണ് കളരി കാണുന്നത് അതിന് പ്രായപരിധി ചെറുപ്പം മുതലേ അഭ്യസിച്ചു വരുന്നതാണ് അത് നല്ല മെയ്വഴക്കവും ഇതൊക്കെ ആയിട്ടൊക്കെയാണ് കൊണ്ട് നടക്കുന്നത് അതിന് പ്രത്യേകിച്ച് വേഷപ്പകർച്ചകളെന്ന് പറയാനില്ല അതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഡ്രെസിങ്ങ് ഇതൊക്കെ വ്യത്യാസമായിട്ടുണ്ട് കൂടുതലായിട്ടും ഗോത്രകലയായിട്ടാണ് ഇതിനെ കാണുന്നത് പണ്ട് മുതലേ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെയൊക്കെ കളരിക്ക് വിട്ട് അതിന് മെയ് വഴക്കമായി ശരീരം ഇണങ്ങി മെയ് വഴക്കമായി കൂടുതൽ കൊണ്ട് നടക്കുന്നൊരു കല കൂടെയാണത് അത് പൊതു വേദികളിൽ തന്നെ അത് പരിശീലിപ്പിച്ചെടുത്താൽ പൊതുവെ പൊതുവേളി പൊതുവേദികളിൽ തന്നെ അത് പ്രദർശിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു പണ്ട് കാലത്ത് ഇപ്പോൾ കാലത്ത് അത് കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന അവസ്ഥയിലേക്കാണ് കാണുന്നത്